വീഡിയോ ഗെയിമിനെ കുറിച്ച് അറിയാത്തൊരാൾക്കാർ ഇപ്പോൾ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല ശരിക്കും നമ്മളെ പലപ്പോൾ കുറേ സങ്കടമുള്ള സമയത്ത് നമ്മളെ ഭയങ്കരമായിട്ട് സന്തോഷിപ്പിച്ച കാര്യമാണ് ഈ വീഡീയോ ഗെയിം എന്ന് പറയുന്നത് കുഞ്ഞ് ചെറുപ്പത്തിൽ ആദ്യം നമ്മൾ ടി വിയിൽ ഈ കാർട്ടൂൺ കാണുമല്ലോ ആ കാർട്ടൂൺ കാണുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫീലിങ്ങ് ഉണ്ട് ഈ ഡക്ക് ടെയിൽസ് ജംഗിൾ ബുക്ക് അത് ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ അത് കിട്ടില്ല പക്ഷേ അന്ന് കാണുമ്പോൾ നമുക്കത് കിട്ടും ആ ഒരു ഫീലിങ്ങ് ആണ് ഈ ഗെയിം ഒക്കെ വീഡിയോ ഗെയിം ഒക്കെ കളിക്കുമ്പോൾ കിട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ചെറുത് ചെറുതെന്ന് അല്ല കുറച്ച് അറിയുന്ന പ്രായത്തിൽ നമ്മുടെ മൊബൈലിൽ നോക്കിയ മൊബൈലിൽ ഈ സ്നേക്ക് ഉണ്ടാവുമല്ലോ സ്നേക്ക് ഗെയിം ഇല്ലേ അതാണ് നമുക്ക് സിമ്പിൾ വളരെ സിമ്പിൾ ഇന്നത്തെ കു ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടില്ല പക്ഷേ അന്നത്തെ കാലഘട്ടത്തിൽ ആ സ്നേക്ക് ഗെയിം എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവം ആണ് പിന്നെ അതേപോലെ ബ്രിക്ക് ഗെയിംസ് ഇല്ലേ മൈബൈലിൽ ഒരു സാധനം വന്നിട്ട് നമ്മൾ അതിനെ ബ്രിക്ക് ഗൈയിം എന്ന് പറയും അതിനെ ഇഷ്ടികയെല്ലാം ബ്രിക്സ് വെച്ച് വെച്ച് ഇതാക്കുന്നത് ആ സംഭവം അത് മാറി പിന്നെ ടി വിയിൽ ഗെയിം കളിക്കാൻ തുടങ്ങി അതായത് കമ്പ്യൂട് ടി വി ഗെയിംസ് ഇല്ലേ അത് കണക്റ്റ് ചെയ്തിട്ട് ആ സമയത്തെല്ലാം ട്രെൻഡ് എന്ന് പറയുന്നത് സൂപ്പർ മാരിയോ ആയിരുന്നു മാരിയോ ഒന്നും ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല നമ്മ നമ്മളെ ചെറുപ്പകാലത്ത് ആ സൂപ്പർ മാരിയോ നമ്മളിൽ തന്ന സന്തോഷം നമുക്കെത്ര പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത് കളിച്ച് കളിച്ച് ഒരാളുടെ അടുത്ത് പറയുന്നതും അതിൻ്റെ ജമ്പിങ്ങും അതിന് അത് മരിക്കുന്നതുമൊക്കെ ആയിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു അത് കഴിഞ്ഞിട്ട് ആണ് പിന്നെ നമ്മൾ നമ്മൾ ജീവിതത്തിലേക്ക് പോവുന്നത് ആ ഒരു കാലഘട്ടത്തിൽ സത്യം പറഞ്ഞാൽ നമ്മൾ ആ സമയത്തൊക്കെ പഠിത്തമൊക്കെ കഴിഞ്ഞു ആ പഠിക്കുന്ന കാലത്തായിരിക്കുമല്ലോ അധിക ഗെയിമിനോടൊരു താല്പര്യം ഉണ്ടാകുന്നത് അത് കഴിഞ്ഞിട്ടാണ് മെല്ലെ മെല്ലെ നമ്മൾ ഓഫിസുകളിലെല്ലാം ആയി ജി ടി എയുടെ ജി ടി എ എന്ന് പറയുന്ന ഒരു ഗെയിമിൻ്റെ ഒരു ഇത് വരുന്നത് അപ്പോൾ നമ്മൾ യങ്ങ് ആയി നമ്മൾ കൗമാരം പിന്നിട്ട് നമ്മൾ ചോരത്തിളപ്പിൻ്റെ നമ്മള പ്രായം ആ സമയത്ത് ജി ടി എ ഒരു കാർ എടുത്ത് പോയി ഒരുത്തനെ അടിച്ചു ഇട്ട് തച്ചിട്ടിട്ട് കാർ എടുത്ത് പോയി മറ്റുള്ളവരെ അറ്റാക്ക് ചെയ്തിട്ട് കുത്തിയിട്ട് വേറെ കാർ സ്റ്റോൾ ചെയ്ത് കട്ടുകൊണ്ട് പോകും അതിന് പെയിന്റ് അടിക്കും അങ്ങനെ നമ്മൾ തന്നെ അതായത് നോർമലി എന്നെ പോലത്തെ ഒരു വ്യക്തിയെ തന്നെ നമ്മളല്ലാതെ ആ ഒരു ക്യാരക്ടർ ആക്കി മാറ്റുന്ന അത്ര ഇമ്പ്രൂവ് ആയി കഴിഞ്ഞു ഇപ്പോഴത്തെ ഗെയിംസ് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ് എൻ്റെ ഒരു പ്രായം എല്ലാം കൺസിഡർ ചെയ്യുന്നെങ്കിൽ നമ്മൾ ബാക്കി മാരേജ് കാര്യങ്ങളെല്ലാം എല്ലാം കഴിഞ്ഞിട്ട് പിന്നെയാണ് പബ്ജി വരുന്നത് പബ്ജി എന്ന് എല്ലാം പറയുമ്പോൾ കുറേ പുള്ളമ്മാരൊക്കെ കളിക്കുന്നത് കണ്ടിട്ടാണ് നമ്മൾ പബ്ജിക്ക് വരുന്നത് നമുക്ക് തോന്നും ഭയങ്കര സ്ലോ ആയിരിക്കും നമുക്ക് പക്ഷേ പബ്ജി ആണ് യഥാർത്ഥ ഗെയിമിങ് എന്താണെന്ന് എന്നെ പോലത്തെ വ്യക്തിക്കെല്ലാം മനസ്സിലാക്കി തന്നത് അതെന്താണെന്നുവെച്ചാൽ ശരിക്കും അതിലുള്ള പബ്ജിയിലുള്ള ഒരു കഥാപാത്രം അത് നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ടുണ്ടാകും അതായത് ആ പബ്ജി കളിച്ച് കളിച്ച് ആ വ്യക്തി നമ്മളായി പിന്നെ ഞാനാണ് അവിടെ അവിടെ ഒരാളെ വെടി വയ്ക്കുന്നതും കൊല്ലുന്നതും ഒളിക്കുന്നതും ഓടുന്നതും വണ്ടിയെടുത്തു ഡ്രൈവ് ചെയ്യുന്നതും എല്ലാം ഞാനാണ് അല്ലാണ്ട് ആ ക്യാരക്ടർ അല്ല നമ്മൾ അതിലേക്ക് മുഴുകി കഴിഞ്ഞ് പിന്നെ അതുതന്നെ ഗെയിം എന്ന് പറഞ്ഞാൽ നമ്മളെ അത്ര എൻ്റെർടെയിൻ ചെയ്യിക്കുന്നൊരു സാധനം ലൈഫിൽ വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എല്ലാ തരത്തിലും നമ്മുടെ ലൈഫിൽ റിസ്ക് ഇല്ലാത്തതുപോലെ കാരണം നമ്മൾ വീട്ടിൽ ഇരുന്നിട്ടാണ് കളിക്കുന്നത് വേറെ റിസ്ക് ഒന്നുമില്ല പക്ഷേ നമ്മളെ ആ ഒരു റിസ്ക് എടുക്കുന്ന ഒരു ക്യാരക്ടർ ആക്കി ആ ക്യാരക്ടർ പലതും ചെയ്യും നമ്മുക്കെന്ത് റിസ്ക് എടുക്കാം എന്ത് വേണമെങ്കിലും ആരെ അറ്റാക്ക് ചെയ്യാം ആരെ വെടി വയ്ക്കാം പലതരം ഗൺ പിന്നെ എല്ലാവർക്കും ഇപ്പോഴത്തെ വയലൻസ് ആണ് ഇപ്പോഴത്തെ ലോകത്തിന്റെ ഒരു സ്വഭാവമാണ് വയലൻസ് ആണ് ഈ വയലൻസിലേക്ക് നമ്മളെ എത്തിക്കാൻ തുടങ്ങി പബ്ജി അതായത് എങ്ങനെ വെടി വയ്ക്കണം എങ്ങനെയൊക്കെ കിടക്കണം എങ്ങനെ ആക്രമിക്കണം എങ്ങനെ രക്ഷപ്പെടണം നമ്മൾ കൂടുതൽ മനസ്സിലാകും പിന്നെ തോക്കിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി തന്നു അങ്ങനെ മൊത്തം നമ്മളെ തന്നെ അതായത് ഞാൻ എന്ന വ്യക്തിനെ തന്നെ നേരെ ഒരു ഗെയിമിലത്തെ ഒരു ക്യാരക്ടർ ആക്കി മാറ്റി തരും അത്രയ്ക്കും അത് നമ്മളെ സന്തോഷിപ്പിക്കും ആനന്ദിപ്പിക്കും പക്ഷേ നേരെ മറിച്ചിട്ട് ഇതിൻ്റെ വേറൊരു സൈഡ് ഉണ്ട് അതായത് ഞാൻ പറഞ്ഞല്ലോ പണ്ട് ഗെയിം കളിക്കുന്ന സമയത്ത് അപ്പോൾ കുട്ടികളാണ് പഠിച്ചില്ലെങ്കിലും വലിയ പ്രശ്നം ഒന്നുമില്ല പഠിത്തം കുറച്ചു ബാക്ക് ആയി കുഴപ്പമില്ല രക്ഷപെട്ട് പോയി പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ ബിസിനസ് ഒക്കെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് ഈ പറയുന്ന ജി ടി എ ഒക്കെ കളിക്കുന്നത് ജി ടി എ കളിച്ച് കളിച്ച് ഓഫീസിൽ നിന്ന് ലാസ്റ്റ് പുറത്തു പോകാൻ ഭയങ്കര മടി ഓഫീസിൽ സിസ്റ്റം കമ്പ്യൂട്ടർ ഉണ്ട് അത് വീട്ടിലില്ല കമ്പ്യൂട്ടറിൽ ഗെയിം കളിക്കും കളിച്ചിട്ട് പുറത്തു പോകില്ല ബിസിനസ് ഭയങ്കരമായിട്ട് ഡൗൺ ആയി ശേഷം ഒരു ഒന്ന് രണ്ടു മാസം കൊണ്ട് എൻ്റെ ബിസിനസ് നാലിൽ ഒന്നായിട്ട് കുറഞ്ഞു സ്റ്റാർട്ടിങ് സമയം എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന സമയത്താണ് ഇത് അപ്പോഴാണ് എനിക്ക് തിരിച്ചറിവ് ഉണ്ടാകുന്നത് ഇത് എന്നെയും കൊണ്ടേ പോകുള്ളൂ കാരണം ഇത് ഓരോ പ്രായം ഓരോ ഗെയിമിന് ഓരോ പ്രായം ഉണ്ട് ആ സമയത്ത് അത് നമുക്ക് ചെയ്യാൻ പറ്റണം അത് കഴിഞ്ഞിട്ട് നമുക്ക് അത് പറ്റിയതല്ല എന്ന് മനസ്സിലാവുന്നത് ആ സമയത്താണ് അതുകൊണ്ട് ഞാൻ ഒന്നുമില്ല തിരിച്ചറിവിൽ സ്പോട്ടിന് ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്തു കാരണം അത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും നമ്മളത് കളിക്കാൻ തോന്നും ഞാൻ നേരെ അൺഇൻസ്റ്റാൾ ചെയ്തു ഞാൻ നേരെ ബിസിനസ് സ്റ്റാർട്ട് ആയി ഒന്ന് ഡെവലപ്പ് ആയി എല്ലാം കഴിഞ്ഞു പോയി പിന്നെ അതൊക്കെ മറന്നു കാലഘട്ടം കുറേ അഞ്ചോ പത്തോ വർഷം കഴിഞ്ഞ ശേഷമാണ് ഈ പബ്ജിയുടെ ഒരു ഇത് വരുന്നത് പബ്ജി ഞാൻ പറഞ്ഞില്ലേ അതുപോലെ നമ്മളെന്ന വ്യക്തി അല്ലാണ്ട് അതിലൊരു ക്യാരക്ടർ ആക്കി നമ്മളെ മാറ്റും അത്ര നമ്മള എൻെറ്റർടൈൻ ചെയ്യിപ്പിക്കുന്ന സംഭവമാണ് ഈ പബ്ജി പക്ഷേ അതിൻ്റെ വേറൊരു വശമുണ്ട് അതായത് നമ്മൾ എന്ന വ്യക്തിക്ക് കുറേ ക്യാരക്ടർസ് ഉണ്ടാകും ഗുഡ് ക്യാരക്ടർസ് ഉണ്ടാകും അതായത് സെൻറ്റിമെൻസ് ഉണ്ടാകും അതുപോലെ സ്നേഹം ഉണ്ടാകാം അനുകമ്പ ഉണ്ടാകാം അങ്ങനത്തെ പല കാര്യങ്ങൾ ഉണ്ടാകും പക്ഷേ പബ്ജിയുടെ ക്യാരക്ടർ ഞാനായി കഴിയുമ്പോൾ എനിക്ക് ഇതൊന്നും ഇല്ലാതായി എൻ്റെ ശത്രുവിനെ അല്ലെങ്കിൽ ഈ നൂറ് പേരിൽ അവസാനത്തെ ഒന്ന് നിലനിൽക്കുന്ന ഒന്ന് ഞാനാവണം അതാണ് അതിൻ്റെ തീം അമ്പതോ നൂറോ ആൾക്കാരുണ്ടെങ്കിൽ ആ നൂറ് ആൾക്കാർ പല ഒരു നാട്ട പല ഒരേ നാട്ടിലെ പല ഭാഗത്തായിട്ട് ഉണ്ടാകും അവരൊക്കെ ഒരു സ്ഥലത്തേക്ക് എത്തണം ഏറ്റവും അവസാനം സർവൈവ് ചെയ്യുന്നവനാണ് വിന്നർ നമ്മളെന്തെയ്യും ഒളിച്ചിട്ടും പാത്തും പതുങ്ങിയും മറ്റവനെ കൊന്നിട്ടും കൂടെ ഉള്ളവനെ കൊന്നിട്ടും എങ്ങനെയൊക്കെ ആയി നമ്മൾ രക്ഷപ്പെടാൻ നോക്കും ആ ഒരു ക്യാരക്ടർ എന്നെ മാറ്റാൻ തുടങ്ങി അതായത് പലപ്പോഴും നമ്മൾ ഈ സീരിയൽ നോക്കുന്ന വീട്ടുകാർ ഈ അമ്മമാരും പെങ്ങൾമാരൊക്കെ സീരിയൽ നോക്കിയിട്ട് അവർ ആ ക്യാരക്ടർ ആവുന്നൊരു സിറ്റുവേഷൻ ഉണ്ട് അതുപോലൊരു സിറ്റുവേഷൻ ഞാൻ ആവാൻ തുടങ്ങി എനിക്ക് ഏറ്റവും അധികം സങ്കടം ആയ ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു ദിവസം എനിക്ക് കുട്ടികളുണ്ട് രണ്ട് മക്കളുണ്ട് എൻ്റെ ചെറിയ കുട്ടികളാണ് വലിയ കുട്ടികളിൻറെ ആ സമയത്താണ് ഞാൻ ഇത് കളിക്കുന്നത് ആ സമയത്ത് ഞാൻ ഒരു ദിവസം കളിക്കുന്ന സമയത്ത് കളിക്കുന്ന സമയത്ത് ലാസ്റ്റ് ആണ് ലാസ്റ്റ് ഞാൻ സർവൈവ് എങ്ങനെയൊക്കെയോ രക്ഷപെട്ട് വെടികൊണ്ടും ഇഞ്ചക്ഷൻ അടിച്ചും രക്ഷപ്പെട്ടും ഒക്കെ വന്ന സമയത്ത് എൻ്റെ മോൻ എന്നെ എന്തോ എന്തിനോ വിളിക്കുവാണ് എന്തോ ചെയ്യുന്നുണ്ട് പെട്ടെന്ന് ദേഷ്യം വന്ന് ഞാൻ അവനെ അടിച്ച് ഞാൻ പൊതുവേ മക്കളെ ഒന്നും അടിക്കാറില്ല കുറവാണ് വളരെ കുറവാണ് അങ്ങനെ അടിക്കാറില്ല സത്യം പറഞ്ഞാൽ അടിച്ചു ഓൻ കരഞ്ഞു വലിയ ചെറുതായിട്ടടിച്ചു വലുതായിട്ട് അടിച്ചിട്ടൊന്നുമില്ല പക്ഷേ ഒരടി കൊടുത്തു കരഞ്ഞു എന്നിട്ട് ഞാൻ റിയലൈസ് ചെയ്യുന്നില്ല ഞാൻ കളിക്കുന്നു അത് കഴിഞ്ഞു ഞാൻ തോറ്റ് പിന്നെ അവൻ്റെ കാലിൽ എൻ്റെ വിരലിൻ്റെ പാടുകളുണ്ട് ചുവന്ന പാട് കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല സങ്കടമാകാൻ തുടങ്ങി ഞാൻ അന്ന് അത് അൺഇൻസ്റ്റാൾ ചെയ്തു ഈ സാധനം എനിക്ക് മനസ്സിലായി അതായത് ഇതിൻ്റെ നല്ല വശം കുറേ ഉണ്ട് നമ്മൾ ഒന്നും അല്ലാതെ നമുക്ക് ഭയങ്കര ബോറടിക്കുന്ന സമയത്ത് നല്ലതായിട്ട് നമ്മളെ വല്ലാതെ എൻെറർടെയിൻ ചെയ്യിപ്പിക്കുന്ന സാധനമാണ് സെയിം ടൈമിന് നമ്മളെ വല്ലാണ്ട് നമ്മളല്ലാതാക്കി കഷ്ടപെടുത്തുന്ന നമ്മളെ സങ്കടപെടുത്തുന്ന നമ്മൾ ഞാൻ എന്ന വ്യക്തി ഞാനെന്ന വ്യക്തി അല്ലാതാക്കുന്നൊരു സാധനം കൂടിയാണ് ഈ ഗെയിമിങ്ങ് എന്ന് പറയുന്നത് അപ്പോൾ ഗെയിമിന് രണ്ടും ഉണ്ട് പക്ഷേ ഇപ്പോൾ ഈ പ്രൊഫഷണൽ ആയിട്ട് ഈ ഗെയിം കളിക്കുന്ന ആൾക്കാരുണ്ട് അതായത് അവരുടെ ബിസിനസ് ആണത് പ്രൊഫഷണിലിസം പ്രൊഫഷണിലിസം എന്ന് പറയുന്ന സാധനം ഈ ഗെയിമിലേക്ക് വന്നൊരു കാലഘട്ടമാണ് ഇപ്പോഴത്തെ അപ്പോൾ അത് അവർക്ക് ഓക്കേ ആണ് അതല്ലാണ്ട് നമ്മുടെ ലൈഫിനെ വിട്ടിട്ടോ അല്ല നമ്മുടെ കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടോ ഇത് കളിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് നമ്മൾ തീർച്ചയായിട്ടും അഡിക്റ്റ് ആകും കാരണം നമ്മൾ മനുഷ്യന്മാരങ്ങനെയാണ് നല്ലൊരു കാര്യം കിട്ടി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വീണ്ടും ആകൃഷ്ടയാകും അപ്പോൾ അതേപോലെ ഗെയിം അതുപോലെയാണ് നമ്മൾ കണ്ട്രോൾ ചെയ്യുന്ന ലൈഫിൽ ഏത് കാര്യമായാലും ഗെയിം എന്നല്ല ഏതായാലും നമ്മളെ നമ്മുടെ ക നിയന്ത്രണത്തിൽനിന്ന് നഷ്ടപെടുന്ന ഒരവസരത്തിൽ നമ്മൾ അവിടുന്ന് രക്ഷപ്പെടാൻ പഠിക്കണം ആ പഠിച്ചാൽ മാത്രമേ നമുക്ക് വിജയമുള്ളൂ നേരെ മറിച്ചിട്ട് ഈ അതിന് അടി അടിമപ്പെട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് നമ്മളല്ലാണ്ട് അത് മാറിപ്പോകും നമ്മുടെ കയ്യിൽനിന്ന് വഴുതിപ്പോകും ഗെയിമും സെയിം ആണ് അത് സന്തോഷത്തിൽ എടുക്കുന്നെങ്കിൽ നല്ലതായി എടുക്കണം നല്ലതായിട്ട് യൂസ് ചെയ്യാം പക്ഷേ എപ്പോൾ അത് നമ്മളെ നിയന്ത്രിക്കാൻ തുടങ്ങുന്നു ആ സമയത്ത് നമ്മൾ അവിടുന്ന് രക്ഷപ്പെടാൻ പഠിക്കണം ആ പഠിച്ചില്ലെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിനെ ഭയങ്കരമായിട്ട് മാറ്റിക്കളയും